തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഞങ്ങള് നേരിടുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്താണ് എല്ലാവരും നമ്മളെ എല്ലാം സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് നമ്മുടെ എന്ത് വേണേലും നമുക്ക് നമ്മള് എന്ത് പറഞ്ഞാലും നമുക്ക് ചെയ്തു തരാൻ അവര് സന്നദ്ധരായിരിക്കും തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കഴിയുന്നതോടെ പിന്നെ ആ ഒരുത്തരേയും കാണാനില്ല പിന്നെ ആ നമ്മളെന്തേലും ഒരു ആവശ്യത്തിന് ചെന്നാൽ പോലും നമ്മളെ തിരിഞ്ഞ് നോക്കുകയില്ലാത്തൊരു സാഹചര്യമാണ് എല്ലാവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് സമയം ആകുമ്പത്തേനും നിങ്ങൾക്ക് എന്താ വേണ്ടത് റോഡ് വേണോ വെള്ളം വേണോ വഴി വേണോ ഈ വീട് വേണോ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ അവരെപ്പോഴും തയ്യാറായിട്ട് വരും എല്ലാ പാർട്ടിക്കാരുടെയും ഗതി ഇത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമ്മളെ എല്ലാവരും സുഖിപ്പിച്ച് നിർത്തും അത് കഴിയുമ്പം പിന്നെ നമുക്കെന്തേലും ഒരാവശ്യം വന്നാലും ഒരുത്തരുടേയും അടുത്ത് ചെന്നാലും നമ്മളെ ആരും സഹായിക്കില്ല പിന്നന്നേരം അവര് പറയും പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ നാളെ വാ അതാ ഇതാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തഴയാനുള്ള ഉള്ള തെരഞ്ഞെടുപ്പും പൺ നേരത്തത്തെ തെരഞ്ഞെടുപ്പിനോടൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആത്മാർഥത ഉണ്ടായിരുന്നു ഇപ്പോൾ ആർക്കും അതിനോടൊന്നും ഒരു യോജി ഒരു ആത്മാർത്ഥത ഇല്ല എല്ലാം അവരവരുടെ ജീവിത മാർഗ്ഗം അവരവരുടെ അതിനോട് മാത്രമേ ഉള്ളൂ അല്ലാതെ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇന്നത്തെ ലോകത്തിലുള്ള എല്ലാവർക്കും അല്ലാതെ മറ്റുള്ളവരെ നന്നാക്കണമെന്നോ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ഇടപെടണമെന്നോ അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യണമെന്നോ ഒന്നും ഈ വക കാര്യങ്ങളൊന്നും ഇവർക്ക് ആർക്കും ഒരു താല്പര്യവും ഇതിനോടില്ല നമുക്ക് നമ്മുടേതായ കാര്യങ്ങള് നമുക്ക് ഒരു പ്രതിനിധി ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാന്നൊക്കെ അല്ലാതെ നമുക്ക് വേറൊന്നും പറയാനും പറ്റത്തില്ല ആരോടും പരാതി പറഞ്ഞിട്ടും കാര്യമില്ല ഇവര് അവര് നമ്മളെ ശ്രവിക്കില്ല നമ്മളെ കേൾക്കില്ല നമ്മളെ ആട് ഒരു ഒരു കാര്യത്തിൽ ഇടപെടാനും തയ്യാറല്ല പിന്നെ നമുക്ക് ആ അല്ല ഇത് തെരഞ്ഞെടുപ്പ് വരുമ്പം മാത്രം എല്ലാവരും നമ്മളെ എന്നാ പറയുന്നത് പൊതുജനം ഒന്നും കഴുതയല്ലന്ന് പറയും എല്ലാവരും അധികാരത്തിൽ കയറി കഴിയുമ്പം എല്ലാം പൊതുജനങ്ങളെ മൊത്തം കഴുതയാണെന്ന് പറയും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മള് കടന്നു പോകുന്നത് ഇലക്ഷൻ വരുമ്പോളാണ് പൊതുജനങ്ങൾക്ക് വില ഉണ്ടാകുന്നത് അതുവരെ പൊതുജനങ്ങൾക്ക് വിലയില്ല നമ്മുടെയൊക്കെ പൊതുജനത്തിൻ്റെ വോട്ടിനാണ് വിലയുള്ളൂ അല്ലാതെ ജനങ്ങൾക്കൊരു വിലയില്ല ഒന്നുമില്ല ഞങ്ങൾ പൊതുജനമാണ് പൊതുജനങ്ങളുടെ കയ്യിൽനിന്നാണ് ഇവര് ഈ ഉദ്യോഗസ്ഥ വൃന്ധങ്ങള് മൊത്തം ജീവിക്കുന്നതന്നെന്നും പൊതുജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് ഇവര് കോടികള് ശമ്പളം പറ്റുന്നതൊന്നും ഇതൊന്നും അവര് ആരും ചിന്തിക്കാറില്ല അപ്പം ഇലക്ഷൻ വരുമ്പോൾ മാത്രേ ഉള്ളു പൊതുജനങ്ങളുടെ ആവശ്യം അല്ലാതെ നമുക്ക് അന്നേരം എല്ലാം വലിയ ആഘോഷം ആർഭാടം അർമാദിച്ച് നടന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് ജയവും പരാജയവും എല്ലാം ആയി കഴിയുമ്പത്തേക്കിനും ആണ് നമ്മളെ ആർക്കും വേണ്ടാത്ത ഏറ്റവും വിലകുറഞ്ഞ പൊതുജനങ്ങളോടാണ് ഏറ്റവും വിലകുറഞ്ഞ് ഏറ്റവും വിലയില്ലാത്തതായിട്ട് മാറ്റുന്നതാണ് പൊതുജനങ്ങളെ പിന്നീട് നമുക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയല്ലേ നമുക്ക് ഇവരോട് പറയാൻ പറ്റുള്ളൂ നമ്മുടെ നാട്ടിൻ്റെ വികസനത്തിനും നാട്ടിലെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെ പറ്റിയാണ് നമുക്ക് ഇവരോട് പറയാനുള്ളത് അത് കേൾക്കാൻ പോലും ഭരണത്തിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമയില്ല പിന്നെ അവരായി അവരുടെ കാര്യങ്ങളായി അവരവരുടെ എല്ലാവരുടെയും അവരെല്ലാവർക്കും അവരവരുടെ ആവശ്യങ്ങള് നിറവേറ്റാൻ മാത്രമാണ് താല്പര്യമുള്ളത് പൊതുജനങ്ങളുടെ ഒരു കാര്യത്തിനും ശ്രദ്ധിക്കാൻ ഒരു ഭരണ കർത്താക്കൾക്കും താല്പര്യമില്ല അതൊക്കെ പണ്ടായിരുന്നു ഇപ്പോൾ ഉള്ള ഭരണകർത്താക്കൾക്കൊന്നും ഇതിനൊന്നും സമയില്ല എങ്ങനെയെങ്കിലും ജയിച്ച് കയറി അധികാരത്തിലെത്തുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമെ എല്ലാവർക്കും ഉള്ളു അതിനോടൊക്കെയാണ് ഞങ്ങൾക്ക് യാതൊരു യോജിപ്പും ഇല്ല അതുകൊണ്ട് ഇലക്ഷനോടും താൽപര്യല്ല കാരണം നമുക്ക് അതുകൊണ്ട് ഒര് നേട്ടവും ഇല്ല നമ്മള് ചുമ്മാ പോയി വെയിലും കൊണ്ടും മഴയും നനഞ്ഞ് വീടും കേറി അതും അവർക്ക് വേണ്ടി അധ്വാനിച്ച് പുറകെ നടന്ന് കഴിഞ്ഞെന്നാലും നമുക്ക് ഒരു ഒരു വിലയില്ല പിന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മള് മാന്യമായിട്ട് ജീവിക്കുന്ന അവനൊൻ്റെ മണ്ണിൽ അധ്യാനിച്ച് ജീവിച്ചെന്നാൽ അവരോർക്ക് കഞ്ഞി കുടിക്കാമെന്നുള്ളൊരു നിലപാടാണ് ഇന്ന് അത് ഇന്നത്തെ സമൂഹത്തില് തെരഞ്ഞെടുപ്പ് കൊണ്ടും എല്ലാം എന്തും ഉണ്ടായാലും അതിനോട് എല്ലാം നമ്മളെ അങ്ങനെയാണ് എല്ലാവരും കാണുന്നതെന്നേ ഉള്ളു നമുക്ക് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങള് ചെയ്യാനും ഭരണകർത്താക്കൾക്ക് തയ്യാറാവുവാണെങ്കില് നല്ല രീതിയില് നമുക്ക് തെരഞ്ഞെടുപ്പും എല്ലാം എല്ലാം നല്ലതാണ് ജനങ്ങളുടെ ജനത്തിൻ്റെ സേവനവും രാജ്യത്തിൻ്റെ ഉന്നതി അതായത് കള്ളത്തരവും കൊള്ളത്തരവും വെട്ടിപ്പും തട്ടിപ്പും ഇല്ലാത്ത ഒരു ഭരണം നമുക്ക് ഉണ്ടാകാനും അതാണ് ഞാന് പൊതുജനങ്ങളാഗ്രഹിക്കുന്ന അങ്ങനുള്ള കാര്യങ്ങളാണ് അതിനോടൊന്നും ഒരു ഭരണ കർത്താക്കൾക്കും താല്പര്യമില്ല അവര് അവരായി അവരുടെ ആൾക്കാരായി അവരുടെ ആൾക്കാരെ നന്നാക്കണമെന്നും അവരുടെ അധീനതയിലുള്ളവരെ എല്ലാം ഭരണത്തിൽ കൊണ്ടുവരാനും അവരവരുടെ ആൾക്കാർക്ക് ജോലി കൊടുക്കാനും എല്ലാത്തിനും ആണ് അവര് താൽപര്യം കാണിക്കുന്നത് അല്ലാതെ നമ്മുടെ ഒരു പൊതു പൊതു ജനങ്ങൾക്ക് വേണ്ടിട്ടായിട്ട് ഒന്നിനോട് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല ഒരു വഴി വേണമെന്ന് പറഞ്ഞാല് അതിൻ്റെ അതിനന്നേരം തന്നെ അവർക്ക് ലോകത്തില്ലാത്ത നിബന്ധനകളെല്ലാം കൊണ്ടൊരു ഒരു റോഡിന് വേണ്ടിയിട്ട് പറഞ്ഞെന്നാൽ ഒരു കുടിവെള്ളവില്ല അത് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു കറൻറ്റ് കണക്ഷൻ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് ഇല്ലാത്ത നിബന്ധനങ്ങളൊന്നുമില്ല സാധാരണ ജനങ്ങൾക്ക് അല്ല അത് ഉന്നതത്തില് അധികാരത്തിലിരിക്കുന്നവർക്കൊക്കെ ഒന്നും വേണ്ട നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് വേണ്ടാത്തത്തൊന്നും ഇല്ല എല്ലാ രീതിയിലും നമ്മള് സഹായിക്കാനും ആണ് ഇവരെ തെരഞ്ഞെടുത്ത് വിടുന്നത് പക്ഷെ അവര് നമ്മളെ ആരും ഒരു തരത്തിലും സഹായിക്കാറില്ല നമുക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു തരാറില്ല ഇലക്ഷൻ വരുമ്പം വീടുകള് കയറി ഇറങ്ങി നിരങ്ങി വോട്ട് ചെയ്യണേ വോട്ട് ചെയ്യണേ എന്ന് പറഞ്ഞ് നടക്കും അത് കഴിയുമ്പം നമ്മളെ വേണ്ട അത് തന്നെ ഉള്ളൂ അവർക്ക് അങ്ങനെയൊക്കെയാണ് പിന്നോട്ടുള്ള അതിനോടത് കൊണ്ട് അതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അതൊക്കെയാണ് ഓക്കേ